ആരോഗ്യസംരക്ഷണത്തെക്കുറിച്ച് എന്റെ മതം കാര്യമായിട്ടൊന്നും തന്നെ പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം പിന്നെ മാനസികാരോഗ്യം കിട്ടാന് വേണ്ടിയിട്ട് ധ്യാനം പോലുള്ള ചടങ്ങ് ധ്യാനം പ്രാര്ത്ഥനകള് അങ്ങനെ ഉള്ള കാര്യങ്ങള് ചെയ്യുന്നു അല്ലെങ്കിലാരും അസുഖം വന്നാല് വന്നാല് പ്രാര്ത്ഥിക്കണം ആരോഗ്യത്തിന് വേണ്ടി പ്രാര്ത്ഥിക്കണമെന്നല്ലാതെ ആരോഗ്യം നിലനിര്ത്താന് വേണ്ടിയിട്ട് മതത്തിൽ നിന്ന് അല്ലെങ്കിൽ ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ചൊന്നും മതം പഠിപ്പിക്കുന്നില്ല മതം പ്രോത്സാഹിപ്പിക്കുണ്ട് പിന്നെ ഇടക്കെടയ്ക്കിങ്ങനെ ആരോഗ്യപരമായ ക്യാമ്പുകൾ ഇതങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സകല സംഘടനകള് വഴി നടത്തുന്നു എന്നല്ലാതെ ഇന്നത്തെ അടിസ്ഥാനത്തില് ഇന്നത്തെ നിലപാടില് ഉയര്ന്ന് വരത്തക്കതായ ആരോഗ്യ സംരക്ഷണമൊന്നും സഭാ മതം പഠിപ്പിക്കുന്നില്ല പിന്നെ മാനസിക ആരോഗ്യവും സമാധാനവും കിട്ടാന് വേണ്ടിയിട്ട് എന്താന്ന് ചോദിച്ചാല് മതം കുറച്ച് കാര്യങ്ങളൊക്കെ ഒരു ധ്യാനം നടത്തുക പ്രാര്ത്ഥനകള് നടത്തുക അങ്ങനെയുള്ള കാര്യങ്ങള് ചെയ്യുന്നുണ്ട് പിന്നെ അതിന് വേണ്ടിയിട്ട് സഭയില് കുറെ കാര്യങ്ങളൊക്കെ ചെയ്ത് വരുന്നുണ്ട്